ഹലോ ഇത് മറിയം റസ്റ്റോറൻറ്റ് അല്ലേ ഞാൻ അവിടെ ഒരു എട്ടുമണിയൊക്കെ ആവുമ്പോൾ ടേബിള്ണ്ടാവോ അല്ലേ റിസർവ് ചെയ്യാൻ പറ്റോ എന്നറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു അതായത് ആ ഒരു ടൈമിൽ ഞാൻ ഫാമിലിയായിട്ട് വരുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ അപ്പം ആ എട്ടു മണിക്ക് എട്ടുമണീ എട്ടെര ആ ടൈമിൽ ടേബിള് കാണോ ആ ടൈമിൽത്തേക്ക് ആ ടേബിള്ണ്ടെങ്കിൽ റിസർവ് ചെയ്യാ നേരത്തെ റിസർവ് ചെയ്തിടാൻ പറ്റോ എന്നറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ഉണ്ട് അപ്പം പിന്നെ പാർക്കിങ് അകത്ത് തന്നെ ഉണ്ടോ അതെയോ ഞാൻ ഞങ്ങൾ പുറത്ത് പാർക്ക് ചെയ്യേണ്ടി വരുവോ അപ്പോൾ അകത്ത് തന്നെയുണ്ട് പിന്നെ കൂടെ റസ്റ്റോറൻറ്റ് അടയ്ക്കുന്ന സമയം അതുകൂടെ അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു ആ ഓക്കേ